ഹലോ ഹലോ ആ മേഡം ഞാൻ എറണാകുളത്ത്ന്ന് വിളിക്കുന്നതായിരുന്നു ഞാൻ നെക്സ്റ്റ് വീക്ക് വയനാട് വരെ ഒന്ന് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടത്തെ ട്രഡീഷണൽ ഫുഡ്സ് എന്തൊക്കെ ആണെന്ന് അറിയാൻ വേണ്ടീട്ട് വിളിക്കുന്നത് ആയിരുന്നു

ആ ആ ആ ഈ പിടിയും കോഴിയും എത്രയാണ് റേറ്റ് വരുന്നത് വരും അല്ലേ അത് സിംഗിള് ഒരാൾക്ക് കഴിക്കാൻ ഉള്ളതല്ലല്ലോ ബൾക്ക് ആയിട്ട് ഉള്ള പാക്ക് ആണോ ആണ് അല്ലേ ആ ഓക്കെ ഓക്കെ ആ നമുക്ക് ഒരു പത്ത് ഇരുപത് പേര് ഉണ്ടാകും അപ്പോൾ നെക്സ്റ്റ് വീക്ക് ആണ് ഞങ്ങൾ എറണാകുളത്ത് നിന്ന് കോഴിക്കോട് വരെ ഉണ്ടാകുള്ളൂ അപ്പോൾ അവിടേക്ക് നിങ്ങൾ ടാക്സി എന്തേലും അറേഞ്ച് ചെയ്ത് തരുമോ ഞങ്ങൾക്ക് അങ്ങോട്ട് വരൻ വേണ്ടീട്ട് ആ അറേഞ്ച് ചെയ്യാൻ പറ്റുമല്ലേ ഒരു ഇരുപത് പേർ ഉണ്ടാകും ഇരുപത് പേരെ ഉണ്ടാവോളൂ അവർക്ക് പറ്റുന്ന രീതിയിൽ അങ്ങനെ ആയാലും കുഴപ്പമില്ല അറേഞ്ച് ചെയ്താൽ മതി ക്യാബ് അങ്ങനെ എന്തേലും മേഡം അറേഞ്ച് ചെയ്താൽ മതി റൂമ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ അല്ലേ അവിടെ ആണല്ലേ നമുക്ക് ഇവിടെ ഒരു ജോബിൻ്റെ മീറ്റിംഗ് ഉണ്ട് അതിന് വേണ്ടി വരുന്നതാണ് അപ്പോൾ അങ്ങനെ അറിയാം ആ ഫുഡ് ആ ആ ഉണ്ടാകും ഉണ്ടാകും ഒരു ത്രീ ഡേയ്സ് ഉണ്ടാകും ആ ഒരു ത്രീ ഡേയ്സ് ഉണ്ടാകും

അല്ല നമ്മൾ ഫുഡ് മൊത്തം അവിടന്ന് തന്നെ ആയിരിക്കും നിങ്ങളുടെ റെസ്റ്റോറൻറ്റീന്ന് തന്നെ കഴിക്കാം എല്ലാം ഉണ്ടാവും ഉണ്ടാവും ഉണ്ടാവും ആ ആ റൂമൊക്കെ വേണം ആ എല്ലാം മൂന്ന് ദിവസത്തേക്ക് അപ്പം മേഡം ഏകദേശം അതിൻ്റെ ഒക്കെ ഒരു ബജറ്റ് ഒന്ന് കണക്ക് കൂട്ടീട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒന്ന് പറയാൻ പറ്റുമോ അതിൻ്റെ ആ നോക്കീട്ട് പറഞ്ഞാൽ മതി ആ ഓക്കെ ആ ഓക്കെ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ മേഡം

ആ ആ ഓക്കെ